അതേ കാറിൻ്റെ ആക്സെസ്സറീസും എല്ലാം ഉള്ള ഷോപ്പ് ആണ് ആ ഓക്കേ ആ ബ്രേക്ക്ഡൌൺ ആവുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം നമ്മുടെ ഇവിടെ എന്ന് വച്ചാൽ എഞ്ചിൻ എഞ്ചിൻ എന്താ പ്രോബ്ലം കൊണ്ട് അതുപോലെ അല്ലെങ്കിൽ ബാറ്ററി ബാറ്ററി പ്രശ്നം വരുന്നതുകൊണ്ട് ബാറ്ററിക്ക് പ്രശ്നം വരുന്നതുകൊണ്ട് ലോക്ക്ഡൌൺ വണ്ടി സ്റ്റോപ്പ് ആയി പോവുക അല്ല ചെയ്യുന്നത് വണ്ടി നമുക്ക് ഓൺ ആക്കാൻ പറ്റത്തില്ല അതാണ് ബാറ്ററിയുടെ ഉള്ള പ്രശ്നം അതിപ്പോൾ നമ്മുടെ ഒരു ഷോറൂമിൽ കൊണ്ടുവരികയാണെങ്കിൽ എന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം

അവർ പ്രശ്നം ഉണ്ട് വണ്ടിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ആൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പിക്ക് ചെയ്ത് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ആ പ്രോബ്ലം പരിഹരിച്ച് തിരിച്ചു കൊണ്ടുപോവും തീർച്ച തീർച്ചയായിട്ടും കൊണ്ടുവരണമെന്നില്ല ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ആൾ വന്ന് വണ്ടി പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ ഫിക്സ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് എക്സ്ട്രാ ആക്സെസറീസ് എന്തെങ്കിലും വേണമെങ്കിൽ അതും ഫിക്സ് ചെയ്യാം പ്രതേകിച്ച് നമ്മുടെ ഷോപ്പിൽ എല്ലാ ആക്സെസ്സറീസും ഉണ്ട് ഒരു കാറിനോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള ഫോർ വീലേർസിന് എല്ലാം വേണ്ട എല്ലാ ആക്സെസ്സറീസും ഉണ്ട് എല്ലാം അതുപോലെ പെയിന്റിങ്ങ് അതുപോലെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ നമ്മുടെ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രധാനായിട്ടും ഇങ്ങനെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് ചെയ്ത് അതിൻ്റെ ഓയിൽ ചേഞ്ച് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയി ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ വരേണ്ടത് അല്ല കുഴപ്പമില്ല എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് ഓക്കേ ഓക്കേ

ഓക്കേ അപ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ വണ്ടി വന്ന് എടുത്തിട്ട് അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം നോക്കിയിട്ട് ഞങ്ങൾ ഡീറ്റൈൽസ് പറയാം അത് ചെയ്തുതരാം ഓക്കേ ഓക്കേ ഓക്കേ ആ ഓക്കേ ശരി